ഹലോ സ്മിത ചേച്ചി അല്ലേ ആ ഞാനൊന്ന് നാട് വരെ പോയിട്ടുണ്ടായിരുന്നു ആ ഇപ്പം മാറ്റി കാണിച്ചിട്ടുണ്ട് ഇപ്പം കുറവുണ്ട് അതെ അതെ അതേല്ലേ ഞാനും അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു കാരണം ആൾക്കാരെല്ലാം വന്ന് ചോദിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു വിത്തുകളും തൈകളും വന്നിട്ടുണ്ടോന്ന് ആ അതെ ഏതൊക്കെ വിത്തുകളും തൈകളും വന്നിട്ടുണ്ടാരുന്നേ ആ അത് ശരി പിന്നെ ജൈവ വളം കിട്ടാനുണ്ടോ അവടെ അതിന് കുറച്ച് ആൾക്കാര് വന്ന് ചോദിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് ശരി കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന തെങ്ങുംതൈ അത്ര കായ് ഫലം ഇല്ല എന്നുള്ളത് കർഷകര് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആ അതെ അത് കിട്ടിയാൽ നല്ലതാരുന്നു അതെ അതെ തെങ്ങിനൊക്കെ ഏറ്റവും നല്ലത് നമ്മുടെ പച്ചില വളങ്ങളും കാര്യങ്ങളും ഇട്ടു കൊടുക്കുന്നെയാ ഇഗ്ലീഷ് വളങ്ങളൊന്നും പണ്ടത്തെ പോലെ അത്ര ഏൽക്കുന്നില്ല അത്യാവശ്യം പച്ചിലയും വേപ്പിലയും മറ്റേ വേപ്പിൻ പിണ്ണാക്കോ പച്ചില തോലോ അങ്ങനെന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണം അല്ലേ

എനിക്കൊര് അമ്പതെണ്ണം വേണ്ടി വരും ഒരണത്തിനിപ്പം ഏകദേശം എത്ര വില വരും അതേല്ലേ ആ ആ താങ്കള് ഈ പച്ചില വളങ്ങള് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ എപ്പഴെങ്കിലും അതേല്ലേ ഞാനെന്തായാലും കർഷകരോട് ഈ വിവരം കൂടി പറയാം അവർക്കതിനെപ്പറ്റി ഒരു ക്ലാസ്സെടുത്ത് കൊടുക്കാം ഇന്നാണേൽ അതിന്റേതായൊരു വ്യത്യാസം അവര് കായ് ഫലത്തിലും കാണുവല്ലോ ആ ഓ ശരി ശരി ഞാനത് അവരോട് പറയാം ഇപ്പം തൽക്കാലം താങ്കൾടെ കൈയ്യിലുള്ള വിത്തിനങ്ങളും തൈകളും തന്നോ ഞാൻ നേരിട്ട് കൊണ്ട് പൊയ്ക്കൊള്ളാം ഇനി ബാക്കി ഇനി വരാനുള്ളത് നമ്മള് സാധാരണ കൊണ്ട് വരുന്ന ആൾടെ കൈയ്യില് കൊടുത്ത് വിട്ടാൽ മതി ആ ശരി ശരി ശരി അപ്പം പൈസയുടെ കാര്യം ഞാനപ്പം ചെയ്തോളാം ഇപ്പം തൽക്കാലം നമക്ക് പിന്നെ കാണാം അല്ലേ ചെറിയൊര് തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടാണേ